എൻറ്റെ കയ്യിലുണ്ടായിരുന്ന ആദ്യത്തേ ഫോണെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരു കട്ടപ്പെട്ടി ഫോണാണ് നോക്കിയ്യെൻ്റെ ഫോണാണ് അതിന് ക്യാമറയോ കാര്യങ്ങളോന്നുമില്ല നമുക്ക് കോൾ ചെയ്യാൻ വേണ്ടി മാത്രമേ ഉപയോഗിക്കാറുള്ളൂ അപ്പോൾ അങ്ങനത്തൊരു ഫോണാണ് എൻ്റെ കയ്യിൽ ആദ്യം ഉണ്ടായിരുന്നത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് മോഡൽ ഒരു ഫോൺ അപ്പം അതായിരുന്നു എൻ്റെ കയ്യിലെന്ന് പറഞ്ഞാൽ ആദ്യം ഉണ്ടായിരുന്നത് എൻ്റെ അച്ഛനെന്നു പറഞ്ഞാൽ ഫോണെന്ന് പറഞ്ഞാൽ ഉപയോഗിക്കാൻ എന്താണെന്നും കൂടി അറിയില്ലാ അപ്പോൾ ഞാനാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കൂടുതലായിട്ടും നല്ലൊരു എന്താ പറയുക നല്ലൊരു ഫോണായിരുന്നു അപ്പം ആ ഒരു ടൈമിൽ ഇറങ്ങിയിട്ടുള്ള ആദ്യത്തെ ഒരു ഫോൺ ആയിരുന്നു എൻ്റെ കയ്യിലുണ്ടായിരുന്നത് പിന്നെ ഞാൻ അതിനുശേഷം വാങ്ങിയിരിക്കുന്നത് ഒരു സി വൺ സി ടു വൺ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോണാണ് നല്ലൊരു എന്താ പറയുക ക്യാമറയുള്ളൊരു എന്താ പറയുക ഫോൺ ആയിരുന്നു ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ നിന്നും മാറിയിട്ട് നമുക്ക് ക്യാമറയും പാട്ട് കേൾക്കാനും അങ്ങനത്തേ കാര്യങ്ങൾക്കൊക്കേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫോൺ പിന്നീട് ഇറങ്ങി അപ്പം നല്ലൊരു ഫോൺ ആയിരുന്നു പിന്നീട് ഇറങ്ങിയത് പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ അതിനു ശേഷമാണ് ഞാൻ ഒരു ഫോൺ എടുക്കുന്നത് ഒരു മൈക്രോ മാക്സിൻറ്റെ ഒരു ടച്ച് ഫോൺ എടുക്കുന്നത് അത് ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു അപ്പോൾ വലിയ രീതിയിലുള്ള കാര്യങ്ങളോ കുഴപ്പങ്ങളോ ഒന്നുമില്ലാണ്ട് നല്ല രീതിയിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റി അപ്പം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണിൻറ്റെ ഒരു വരവ് കുറിച്ചുകൊണ്ടായിരുന്നു ഒരു ടൈമിൽ ആയിരുന്നു പിന്നെയെന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എല്ലാവരുടെയുമടുത്ത് സുലഭമായിട്ട് സ്മാർട്ട് ഫോൺ സ്മാർട്ട് ഫോണും കാര്യങ്ങളും സാങ്കേതികവിദ്യ എല്ലാം രീതിയിലും മുന്നിട്ട് നിൽക്കുന്നുണ്ട് ഇപ്പോൾ ഒരു ചെറിയൊരു ഏതൊരാളുടേ എടുത്തു നോക്കിയാലും സ്മാർട്ട് ഫോൺ ഇല്ലാത്ത ഒരാളു പോലുമില്ല